ഉൽസവങ്ങൾക്കായി ആയി ദൈവപ്രതിമകൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ദൈവപ്രതീകമായ പല സംഭവങ്ങളും നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണജയന്തിയും ആയും അനുബന്ധപ്പെട്ട ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോവുകയും കൃഷ്ണൻ്റെ വേഷം ധരിക്കുകയും അവിടെ നിന്നും ജാഥയായി മറ്റൊരു അമ്പലത്തിലോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഉള്ള പല കുട്ടികളും ഇതിനായിട്ട് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ എത്തുകയും രാവിലെ അമ്പലത്തിൽ എത്തി കൃഷ്ണൻ്റെ പോലെ നീല കാർവർണ്ണനായിട്ട് രൂപം മാറും മേക്കപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൃഷ്ണൻ്റെ രൂപത്തിൽ ഉള്ള ഡ്രെസ്സുകളും മറ്റും ധരിക്കുകയും ഓടക്കുഴലും എല്ലാം എടുത്ത് ഒരു ജാഥയായി കൂട്ടത്തോടെ ശ്രീകൃഷ്ണനാമജപത്തോടുകൂടി ഒരു ശ്രീകൃഷ്ണ അമ്പലത്തിൽ നിന്നും മറ്റൊരു അമ്പലത്തിലേക്ക് പോകുകയും അതിന് അനുബന്ധപെട്ട പരുപാടികൾ നടത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പൂര അനുബന്ധമായി നടക്കുന്ന ആചാരാനുഷ്ടാനങ്ങളിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് പല പരിപാടികളിൽ നടക്കുകയും പല കാര്യങ്ങളിൽ സഹായിക്കുവാനും ചെയ്തിട്ടുണ്ട്